ഞാൻ യൂട്യൂബിലാണ് കുക്കിങ് ചാനൽ കാണുന്നത് അതിലെനിക്കേറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി നായർ വ്ളോഗ്സാണ് അതിൽ നല്ല ഡിഫ്റെൻറ്റ് ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി ഡിഷസ് ആ മാം ഉണ്ടാക്കുന്നുണ്ട് അതു കണ്ടുകൊണ്ടിരിക്കാനും സമയം പോകും മടുക്കില്ല നമുക്കത് കാണുമ്പോൾ ബോർ ഒട്ടുംതന്നെ ബോറടിക്കില്ല അതു കൊണ്ട് ആ ചാനൽ ഞാൻ എപ്പോഴും കാണാറുണ്ട് ഞാനവരുടെ ഒരു സബ്സ്ക്രൈബറാണ് നല്ല പ്രോഗ്രാമാണ് പിന്നെ എനിക്ക് മറ്റു ഭാഷകളിൽ കാണാൻ ഏറ്റും ഇഷ്ടം തെലുങ്ക് സീരിയൽ ഇഷ്ടമാണ് അതു ഞാൻ നമുക്കു സീ കേരളത്തിൽ കാണാറുണ്ട് നല്ല നല്ല ചാനലാണ് നാ നല്ല പ്രോഗ്രാമുകളും ആണ് അതിനകത്തു വരുന്നത് പിന്നേ പിന്നെയെനിക്ക് ഒന്നു രണ്ടു പ്രോഗ്രാംസ് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മഴവിൽ മനോരമയിലെ ക്രോ കോമഡി പ്രോഗ്രാംസൊക്കെ എനിക്കിഷ്ടമാണ് അതൊക്കെ ഞാൻ കാണാറുണ്ട് പിന്നെ കുക്കിങ് ചാനൽ ലക്ഷ്മി നായരുടെയാണ് ഏറ്റും ഇഷ്ടം എങ്കിലും മറ്റ് ഒത്തിരി കുക്കിങ് ചാനലുണ്ട് അതൊക്കെ ഞാൻ കാണാറുണ്ട് അതൊക്കെ ട്രൈ ചെയ്യാറുണ്ട് പിന്നെ പാ എടുത്തു പറയാനാണെങ്കിൽ ഞാ കാണുന്നത് ഒരു മോമോസ് അഡ് മോമോസ് തട്ടടുക്കള എന്നുംപറഞ്ഞൊരു കുക്കിങ് ചാനൽ കാണാറുണ്ട് അവരുടെ പ്രസൻറ്റേഷൻ വളരെ നല്ലതാണ് ഭയങ്കര ഒറിജിനലായിട്ടാണ് കാണിക്കുന്നത് പിന്നെ അതൊരു സാധാരണ ഒരു കുടുംബത്തെ ഒരു ഡെയ്ലി ആയിട്ടുള്ളൊരു ലൈഫാണ് അവർ കാണിക്കണേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ ആ പിന്നെ അതേപോലെതന്നെ വേറെ വേറെ ഒത്തിരി വേറെ ഇപ്പോൾ കുക്കിങ് ചാനൽ അല്ലാണ്ടു നമുക്കിഷ്ടമുള്ള ഒത്തിരി ചാനൽസുണ്ട് അതൊക്കെ ഞാൻ ഇഷ് നന്നായി കാണാറുണ്ട് അത് അത് അത് പിന്നേ എന്താണ് എം ഫോർ ടെക്ക് അതേപോല എന്താണ് വേറെ ട്രാവൽ വ്ളോഗ്സ് കാണാറുണ്ട് പെ പിന്നെന്താണ് പിന്നെ പിന്നെ ഡാൻസിൻ്റെ പ്രോഗ്രാംസ് കോമഡി പ്രോഗ്രാംസ് അങ്ങനെയൊക്കെയുള്ള ഇഷ്ടമ്മാതിരി ചാനൽ കാണാറുണ്ട് അതേപോലെ നമ്മാ എന്താണ് നമ്മടെ ഈ ഓൺലൈനായിട്ടുൾ ഡ്രസ്സിങ്ങിൻ്റെ ഇഷ്ടംമാതിരി ചാൻലുണ്ട് അതൊക്കെ കാണാറുണ്ട് പിന്നെ അത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതു കണ്ടിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ നമുക്കത് അതേപോലെത്തന്നെ മേടിക്കണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നാറുണ്ട് എന്നുപറയുമ്പോൾ നന്നായിട്ടുള്ള വർക്കുകളാണ് അവർ ചെയ്ത് കാണിക്കുന്നത് ഉടുപ്പിലായാലും ബാക്കിയുള്ള കാര്യങ്ങൾക്കായാലും ഇപ്പം പിന്നെ ടോയ്സ് അതിൽ തന്നെയാണെങ്കിലും അത് ഒക്കെ നന്നായിട്ട് ഒരു ടോയ്സ് ഉണ്ടാകാൻ ഇപ്പോൾ എന്തു കാര്യമാണെങ്കിലും നമുക്കിപ്പോൾ യൂട്യൂബിനെ ഡിപെൻഡ് ചെയ്യേണ്ടിവരും ഏത് എന്തൊരു സബ്ജെക്ടിനെ കുറിച്ചായാലും ഇപ്പം യൂട്യൂബ് ചാനലുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായമാണ് അതായത് ഏറ്റവും എന്നുപറയുമ്പോൾ എനിക്ക് ഇതിനെ കാട്ടിയും ഇഷ്ടം എൻ്റെ മകനു ആവശ്യം അത്യാവശ്യമായിട്ടുള്ളൊരു ചാനലുണ്ട് അതായത് മാത്സ് ക്ലാസ്സുകൾ നടത്തുന്ന സ്മാർട്ട് ലേർണിങ് എന്നുപറയുന്നൊരു ടീച്ചറിൻ്റെ യൂട്യൂബ് ചാനലുണ്ട് ഓ അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല അത്ര നന്നായിട്ട് പുള്ളി ക്കാരി പഠിപ്പിക്കുന്നൊരു ചാനലാണ് യൂ സ്മാർട്ട് ലേർണിങ് എന്നുപറയുന്നത് അത് ഏത് ഒട്ടും അറിഞ്ഞുകൂടാത്ത മാസ്സും മനസ്സിലി നന്നായി മാനിഷ്ട കുട്ടികൾക്കു മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കുന്ന എനിക്ക് പറയാനാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാൻലാണ് സ്മാർട്ട് ലേർണിങ് എന്നുപറയുന്ന യൂട്യൂബ് ചാനൽ അതു ഞാൻ ഒത്തിരി ഒത്തിരി ഒത്തിരി തവണ കാണാറുണ്ട് അതിൻ്റെ സ്ഥിരം ഒരു പ്രേക്ഷകയാണ് ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ യൂട്യൂബിലെ എല്ലാ ചാനലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സാധാരണ ഒത്തിരി ഇത്താ എന്താണ് നമ്മൾ പാവപ്പെട്ട വീട്ടിലുള്ള സാധാരണ കുട്ടികളൊക്കെ നടത്തുന്ന യൂട്യൂബ് ചാനലൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്

എന്തായാലും എനിക്ക് ഇഷ്ടമാണ് പിന്നെ തമിഴ് ചാനലായ മറ്റു വില്ലേജ് കുക്കിങ് ഒ വേറെ ഭാഷകളിലൊക്കെ ആണെന്നുപറയുമ്പോൾ തമിഴ് ചാനലിലെ വില്ലേജ് കുക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാല് അഞ്ച് ആൾക്കാ ആണുങ്ങൾ ചെയ്യുന്ന ചാനൽ അതൊക്കെ നല്ല വളരെ നല്ല ചാനലാണ് പ്രേത്യേകിച്ച് ആ വില്ലേജ് കുക്കിങ്ങിൽ നമ്മുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി ഒക്കെ വന്നിട്ട് കുക്ക് ചെയ്യുന്നൊരു ചാനലുണ്ടായിരുന്നു അതൊക്കെ സൂപ്പർ നല്ല അടിപൊളിയായിരുന്നു